എഴുത്ത് എഴുതാൻ പറ്റിയ ഒരു ആശയം എന്നു പറയുന്നത് നമ്മുടെ തോട്ട് ആയിരിക്കും നമ്മുടെ ചിന്ത ആയിരിക്കും കാരണം നമുക്ക് നല്ല ചിന്ത ഇണ്ടെങ്കിൽ നല്ലവണ്ണം നന്നായിട്ട് നമ്മുടെ നമ്മുടെ നമ്മുടെ ബ്രെയിൻ വർക്കാവും കാരണം നമുക്ക് കൂടുതലും ആൾ വല്യ വല്യ സാഹിത്യകാരന്മാരൊക്കെ അങ്ങനെ ആയിരിക്കും എഴുത്തുണ്ടാവുക പിന്നെ അതേപോലെ തന്നെ വേണ്ടൊരു മറ്റു കാര്യാണ് നമുക്ക് ഒരു കൂടുതലും എക്സ്പീരിയൻസ് എന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും അനുഭവങ്ങളൊക്കെ കാരണം കുടുതലും അതിനെക്കുറിച്ചു എഴുതാനായിരിക്കും എഴുതാനുള്ള തീവ്രതയും തീക്ഷണതയും ഒക്കെ കൂടുതലായിരിക്കും അതുകൊണ്ടു തന്നെ എന്തെങ്കിലും നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും എന്തെങ്കിലൊക്കെ ഇപ്പോൾ ഒക്കെ ആയിട്ട് എന്താ പറയുക അനുഭവം ഉണ്ടെങ്കിൽ തന്നെ നമ്മള് റൈറ്റിംഗ് എഴുതുന്ന ഒരു കഴിവ് നമുക്ക് കൂടും